ഹലോ അമല ഫിഷാര്ബറാണോ ആ ഞാാന് നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഇവിടെ ഞാൻ ചങ്ങനാശ്ശേരിയിലേ ഒരു ചെറിയ ഹോട്ടല് തുടങ്ങി അപ്പോൾ എനിക്ക് മീനിൻ്റെ ആവശ്യമുണ്ടേ അപ്പോള് ഏതൊക്കെ മീനാണെന്നു ചോദിച്ചുകഴിഞ്ഞാല് എനിക്ക് മെയിനായിട്ട് വേണ്ടത് കറിവയ്ക്കാൻ നുറുക്കായിട്ടുള്ള വലിയ മീന് ആവശ്യമുണ്ട് പിന്നെ വറക്കാൻ വേണ്ടി ചെറിയ അയലകളും ആവശ്യമുണ്ട് വേറെ ഈ രണ്ടു മീന് മതി പിന്നെ നിങ്ങള്ക്ക് അല്ല നിങ്ങള്ക്ക് നിങ്ങള്ക്ക് എന്തെല്ലാം എത്ര കിലോ ഉം നിങ്ങള്ക്ക് എത്ര കിലോ സപ്ലൈയാൻ സാധിക്കും രാവിലെ എനിക്കു വേണ്ടത് കറി വെക്കാനുള്ള നുറുക്ക് മീന് അതായത് വറ്റ പറ്റും ആവോലി പറ്റും പിന്നെ അല്ലെങ്കിൽ ആ നോക്കൂ എന്നാല് അതും കുഴപ്പമില്ല നിയ്മീൻ വേണ്ട നമുക്ക് നിങ്ങളതിൻ്റെ ഒരു കാര്യംചെയ്യൂ ക്കോള്ള ഞങ്ങള്ക്ക് ഒരു ബിസിനസ്സാണ് വലിയ വലിയ ചെറിയ ബിസിനസ്സാണേ അതുകൊണ്ട് നിങ്ങള്ക്ക് ഞങ്ങള്ക്ക് എന്നും വേണം ഈ ആഴ്ച നിങ്ങള്ക്കിതെന്നും ഞങ്ങള്ക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ ഓക്കെ എനിക്ക് അയല ഒന്ന് ഒരു മൂന്ന് കിലോ അയല ആവശ്യമുണ്ടേ ഉം മൂന്ന് കിലോ അത് ദിവസം ദിവസവും വേണം അതുപോലെ ആ ഉണ്ടേ മൂന്ന് കിലോ അയിലയും മൂന്ന് കിലോ വറ്റയും ഡെയിലി വേണ്ടതാണ് ഉം ഓക്കെ

അപ്പോള് എന്താണ് എനിക്കിപ്പോള് അറിയേണ്ടത് നിങ്ങള്ക്ക് അയിലയും ഈ വറ്റയും ഏതു വില എത്ര വില വച്ചു തരാൻ പറ്റും എന്നാലും ഒരു തൊക്കെ സമ്മതിച്ചു ഇന്നത്തെ ഇന്നു നിങ്ങള്ക്ക് ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞു ഞാന് എൻ്റെ കാര്യം ഞാൻ ആദ്യമേ എൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ഒരു ചെറിയ ബിസിനസ്സ് നടത്തുന്നവനാണ് അല്ലാതെ വല്ല്യൊരു ഫൈവ് സ്റ്റാര് ഹോട്ടല് തല്ല ഓക്കെ പിന്നെ വറ്റയെന്നു പറഞ്ഞ സംഗതി ഡെയിലി കിട്ടുന്നില്ലെങ്കില് അതായത് നാളെ ഇപ്പോള് വറ്റ ഇല്ലെങ്കില് വറ്റയ്ക്കുപകരം നിങ്ങളെനിക്ക് ഇതുതന്നെ ഇത് തരണം ഏതാണ് ആ പറ്റുന്ന അപ്പോള് അയില ഇല്ലെങ്കില് അയിലയ്ക്ക് അയിലയ്ക്കു പകരം ചെറിയ ഇത് വേറെ ആ അതിനു പറ്റുന്ന വേറെയൊക്കെ നല്ല കിളി മീനോ ഓക്കെ ആ ഓക്കെ എന്നാല് ഓക്കെ ഞാ ഓക്കെ ഞാനിപ്പോള് മൂന്ന് കിലോ മൂന്ന് കിലോ അയലയ്ക്കും മൂന്ന് കിലോ വറ്റയ്ക്കും ഞാൻ ആളിനെ ഇന്നത്തേക്ക് വിടുകയാണേ ഇപ്പോള് ആ ഐറ്റം റെഡിലി ഉണ്ടോ കടയിലുണ്ടോ ഓക്കെ ആ ആ പുള്ളി വരും പുള്ളിയുടെ കൈയില് കൊടുത്തുവിടുക ഇന്നത്തേക്ക് മൂന്ന് കിലോ അയിലയും മൂന്ന് കിലോ ഓക്കെ ഓക്കെ ശരി താങ്ക്യൂ ശരി ബൈ